വരയ്ക്കുമ്പോൾ ഏത് തരത്തിലുള്ള കലാ സാമഗ്രികളാണ് ഉപയോഗിക്കാൻ ഇഷ്ട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും പെൻസില് പെൻസിൽ ഡ്രോയിങാണ് എനിക്കിഷ്ട്ടം ഇപ്പോൾ നമ്മളിതിപ്പോൾ ഒരു ചിത്രം വരച്ച് കളർ ചെയ്തിട്ട് ഇതാകുന്നെനെക്കാളും എത്രയോ ഭംഗി പെൻസിൽ കൊണ്ട് വരച്ചിട്ടുള്ളതാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ ബ്രാൻഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാംലിനാണ് ഉപയോഗിക്കാറ് കാംലിൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് കാംലിൻ അടിപൊളിയാണ് വരയ്ക്കാൻ നല്ല സുഖമാണ് അതായത് നല്ല നമുക്ക് ഡാർക്ക് വേണ്ട സ്ഥലത്ത് ഡാർക്ക് ആക്കം പിന്നെ അങ്ങനത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പെൻസിലുകൾ പലതും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കാംലിൻ എന്ന ബ്രാൻഡാണ് പിന്നെ എവിടുന്നാണ് മേടിക്കുക എന്ന് വെച്ചാൽ ഞാൻ മാനന്തവാടിന്ന് പറഞ്ഞ് നമ്മുടെ ടൗണ് മാനന്തവാടിയാണ് അപ്പം മാനന്തവാടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ബുക്ക് സ്റ്റാളുകളുണ്ടാവും അപ്പോൾ ബുക്ക് സ്റ്റാള് അതായത് നോട്ട് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള സ്ഥലത്ത് അവിടുന്നാണ് ഞാൻ ചെയ്യാറ് അവിടുന്നാണ് ഞാൻ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാറ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില വിലയിപ്പം കുറച്ച് കൂടുതൽ തന്നെയാണ് പണ്ടൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ചു രൂപക്ക് ഒക്കെയാണ് പെൻസില് മേടിച്ച് മേടിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ആ പെൻസിലിന് ഇരുപത്തിയഞ്ച് രൂപയാണ് പൈസയെല്ലാം കൂടുന്നുണ്ട്